ഞാൻ ചിത്രം വരയ്ക്കാൻ ചിത്രരചനയില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരാളാണ് അത്യാവശ്യം ഞാൻ ഓരോ വസ്തുക്കളും കണ്ടാലും നോക്കിയും എല്ലാം വരയ്ക്കുന്ന കൂട്ടത്തിലാണ് അതുപോലെ എൻ്റെ മക്കളും ചിത്രരചനയിൽ പഠിക്കുന്നുണ്ട് ചിത്രം വരയ്ക്കാൻ വിടുന്നുണ്ട് അവർക്കും ആ കഴിവ് ഉണ്ട് പിന്നെ ഞാന് ഇപ്പം നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമുക്കത് വരയ്ക്കാൻ തോന്നും അതുപോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നോക്കി വരയ്ക്കും പിന്നെ പൂക്കളും ഫ്ലവേഴ്സ് എല്ലാം നോക്കി വരയ്ക്കാറുണ്ട് പിന്നെ അത് ചില ഘട്ടങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാ അനുഭവപ്പെടാറുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം പതിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് എങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി ഓരോ ഓരോ ചിത്രങ്ങളും എല്ലാം കാണുമ്പോൾ ഞാനത് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് ഇപ്പം ഒരു ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ളതും അങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കഴിവ് അനുസരിച്ച് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഞാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുമുണ്ട്